അങ്ങനെ കൂടുതൽ ദിവസം പുറത്ത് പോകാറില്ല കൂടുതലും ഒരുപാട് ചെടികൾ എൻ്റെ വീടിന് മുറ്റത്തുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ മാറി നിക്കാറില്ല അങ്ങനെ മാറി നിൽക്കാനുള്ള സാഹചര്യം വന്നാൽ തന്നെ ഇപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും പോവുന്നത് അത് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസത്തിന് ശേഷം വെള്ളം ഒഴിക്കേണ്ടി വന്നാൽ തന്നെ അപ്പുറത്തെ വീട്ടിലെ അയൽവക്കത്തുള്ള ആളിനെ ഏൽപ്പിച്ചിട്ട് പോവും ആൾ വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോവാറുണ്ട് പിന്നെ മഴയൊക്കെ ആണെങ്കിൽ മാറി നിക്കുന്നതിൽ എളുപ്പമാണ് കാരണം ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു കാര്യത്തിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല എന്നിരുന്നാലും വെള്ളം ഒഴിക്കുന്നത് മാത്രമല്ല ചെടിയിൽ ചില ചെടികളിൽ നമ്മൾ കൂടെ നിന്ന് പരിപാലിച്ചില്ലെങ്കിൽ അത് നേരായ രീതിയിൽ വളർന്ന് വരില്ല ചിലപ്പോൾ അതിൽ വണ്ട് പൂവിൽ ഇപ്പോൾ റോസയിലൊക്കെ ആയാൽ തന്നെ വണ്ടൊക്കെ വന്ന് കയറി ഇരിക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് ശരിയാവൂല അത് ഫുള്ള് പട്ട് പോവും അപ്പം ഇങ്ങനെ ഒരു ഒരു ദിവസത്തിൽ കൂടുതൽ ഒരു ഒരുപാട് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിക്കണമെങ്കിൽ അടുത്തുള്ള ആളിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടായിരിക്കും പോവാറുള്ളത് ആൾ വന്ന് വെള്ളം ഒഴിക്കാറുണ്ട് ചിലപ്പോൾ അതിന് വളം ഇടാൻ ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് പോകും പറ്റുന്ന സമയമാണെങ്കിൽ ആള് ഇട്ടിട്ട് പോവും അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതൊരു നല്ലൊരു കാര്യവാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് ദിവസം ഒന്നും മാറി നിക്കാറില്ല കൂടുതലും ഇരു ഒരുപാട് ചെടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരുപാട് ദിവസം മാറി നിക്കാറില്ല കൂടെ നിന്ന് പരിപാലിച്ചില്ലെങ്കിൽ നശിച്ച് പോകുന്ന ഒരുപാട് ചെടികളുണ്ട് ഇപ്പോൾ ഒടിച്ചുകുത്തി അങ്ങനെ തണ്ടിന് ബലമില്ലാത്ത ഒരുപാട് ചെടികളുണ്ട് അപ്പം അതൊക്കെ ഒരു മഴ പെയ്താൽ തന്നെ അതൊടിഞ്ഞ് പോവും അപ്പം നമ്മൾ കൂടെ നിന്ന് അതൊടിച്ച് മാറ്റി നട്ടില്ലെങ്കിൽ അതവിടെ നിന്ന് അവിടെ തണ്ടിന് ബലോല്ലാത്തത് കൊണ്ട് തന്നെ അത് അഴുവി പോവും അപ്പോൾ നമ്മൾ കൂടെ നിൽക്കണം അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്